മൂന്ന് അഞ്ചേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് അഞ്ചേ പതിനൊന്ന് രണ്ടായിരം ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഒന്ന് പിന്നെ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട്